ആ ഹലോ മ് അതേ സാർ ഹൗ മേ അസിസ്റ്റ് യൂ ആ ഞാനെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് ആ എ എത്ര ഒരു മാസത്തേക്കാണോ ആം അപ്പോൾ ഒരു മാസത്തേക്കാണെങ്കിൽ നമുക്ക് ഇരുപത്തയ്യായിരം രൂപയാകും ആ ആ ഡിസ്ക്കൗണ്ടായിട്ട് സാർ നമുക്ക് ഒരു നമുക്ക് ഇപ്പം ഇപ്പം കസ്റ്റമർ ഉള്ളതായതു കൊണ്ട് നമുക്കിപ്പം അയ്യേ അയ്യായിരം രൂപ കുറയ്ക്കാം ഇരുപതാക്കിത്തരാൻ പറ്റുമോ റൗണ്ട് ചെയ്ത് ആ പിന്നെ ഇതിൽ ഇതു തരുമ്പം നമുക്ക് ലൈസൻസ് ഇതൊക്കെ പ്രൂഫിനു വേണ്ടി വണ്ടി എന്തെങ്കിലും സ്ക്രാച്ച് പറ്റിയാൽ അതിനു വേണ്ടി അതിൻ്റെ പ്രൊസീജ്യറിനു വേണ്ടി ലൈസൻസ് അതൊക്കെ വേണ്ടി വരും ആധാർ ഇവിടെ സബ്മിറ്റ് ചെയ്യണം ഇതു വണ്ടി തിരിച്ച് നിങ്ങൾ തരുമ്പോൾ ഇതു തരും പ്രൂഫിനു വേണ്ടി ആ പിന്നെ

ആ അപ്പോഴേ ഈ മാസം മുപ്പതാണെങ്കിൽ അടുത്ത മാസം അടുത്തതിൻ്റടുത്ത മാസം അപ്പോൾ ഇപ്പം ഇപ്പം ഒക്ടോബറല്ലേ അപ്പോൾ ആ അടുത്ത മാസം കംപ്ലീറ്റ് ചെയ്തു തരാൻ പറ്റും അപ്പോഴിപ്പം അഡ്വാൻസ് പേയ്മെൻ്റ് ചെയ്തു തരാൻ പറ്റുമോ ആ അഡ്വാൻസായിട്ട് ഒരു പത്ത് അടച്ചാൽ മതി അതു കഴിഞ്ഞു നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങൾ ഇതു നിങ്ങൾ വണ്ടി സബ്മ്മിറ്റ് ചെയ്യുന്ന മുൻപേ തിരിച്ച് ഏൽപ്പിക്കുന്നതിനു മുൻപ് ഇതു ക്ലിയർ ചെയ്താൽ മതി ഹലോ ആ കേൾക്കാം ആ റേഞ്ച് കട്ടായി ആ അപ്പോൾ പറഞ്ഞ ടൈമിൽ സബ്മിറ്റ് ചെയ്യാം ആ അതെല്ലാം അതെല്ലാം കണ്ടീഷനാണ് സാർ വെൾ ഇവിടെ ഫുള്ളും വെള്ളയാണ് പിന്നെ ആ അല്ല സാർ ഏതാണ് ഇത് മാരുതിയുണ്ട് അതു ചോദിക്കാൻ മറന്നു പോയി ആ സോറി സാർ അതൊന്നുമില്ല സാർ ഓക്കേ സാർ അപ്പോൾ ചോദിച്ചിട്ടു പറഞ്ഞാൽ മതി ആ അപ്പം സാറിൻ്റെ ഫോൺ നമ്പറൊന്നു പറയാമോ ആ സാറേ ഒന്നു നിർത്തി നിർത്തി പറയാമോ ആ എന്താണ് എൺപത്തൊൻപത് എഴുപത്താറ് എൺപത്തി മൂന്ന് ആ ഓക്കെ സാർ ഓക്കേ സാർ ആ